നമ്മുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഏതൊക്കെ പരസ്യ വഴികളിലൂടെ നമുക്ക് കൂടുതലും ആൾക്കാരിലേക്ക് എത്താൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പം നമുക്ക് തന്നെ കുറെ പരസ്യം ഉണ്ട് പക്ഷേ എനിക്ക് സ്വാധീനിച്ച എനിക്ക് നല്ലതായിട്ട് തോന്നിയ പരസ്യം ഈ മൈജിയിലെ പരസ്യം എന്ന് പറയുന്നത് മൈ ജീ ഫ്യൂച്ചർ എന്ന് വച്ചാൽ നമ്മുടെ മൊബൈൽ സ്മാർട്ട്ഫോൺ വാഷിംഗ് മെഷീൻ കിച്ചൻ സെറ്റ് മീൻസ് കിച്ചണിലുള്ള എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ കിച്ചണിൽ വാഷിംഗ് മെഷീൻ മിക്സി അതുപോലെ തന്നെ ഫാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഈ മൈജി ഫ്യൂച്ചർ എന്നു പറയുന്നത് അതിൽ തന്നെ നമുക്ക് ഓണത്തിന് ആണെങ്കിലും നമുക്ക് സംഭവം ഓഫർ ഉണ്ടാകും അതുകൊണ്ട് ഏറ്റവും സ്വാധീനശക്തിയുള്ള പരസ്യം എന്ന് പറഞ്ഞാ എനിക്ക് മൈ ജി ഫ്യൂച്ചർ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി എൻ്റെ കാര്യമാണ് പറയുന്നത് പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കാരണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഫോൺ സ്മാർട്ട് ഫോൺ ആണ് വേണ്ടത് അപ്പോൾ സ്മാർട്ട് ഫോണിന് ആണെങ്കിലും എന്താ പറയുക എല്ലാവരും മൈ ജിലോട്ടാണ് പോകുന്നത് മൈ ജിലോട്ടാണ് അത്യാവശ്യം എന്താ പറയാ ഓണത്തിന് ആണെങ്കിലും ക്രിസ്മസിന് ആണെങ്കിലും ഓരോ ഓഫറും കാര്യങ്ങളും ഒക്കെ മൈജിയില് വരാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനശക്തിയുള്ള പരസ്യമായിട്ട് തോന്നിയത് മൈജിയുടെ ആണ്